എനിക്ക് പൂക്കളാണ് ഇഷ്ടം എല്ലാ പൂക്കളും ഇഷ്ടമാണ് റോസ് ആണ് ഇഷ്ടം ഞാൻ ഇപ്പം റോസ് നട്ടിട്ടുണ്ട് പുറത്ത് പുറത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഗവർമെൻറ്റ് സ്ഥലത്താണ് നട്ടിട്ടുള്ളത് അവിടെ കുറേ ഒരു ദിവസത്തിൽ ഒരു അൻപത് റോസാപ്പൂക്കളെല്ലാം വിരിയും പിന്നെ അതു കൂടാതെ പിന്നെ മന്ദാരം പിന്നെ ചെത്തി അതുപോലെ അരളി അതുപോലെ പിന്നെ എല്ലാ ചെടികളും ഉണ്ട് നമ്മുടെ പുറത്ത് വന്നെങ്കിൽ കാണാം എല്ലാം റോഡ് സൈഡ് ആണ് നട്ടിട്ടുള്ളത് നമ്മളെ ഇതല്ല നമ്മളെ സ്ഥലമല്ല ഗവർമെൻറ്റ് സ്ഥലമാണ് പിന്നെ എങ്ങും അവിടെയെല്ലാം നട്ടിട്ട് നല്ല മോടി പിടിപ്പിച്ചിട്ടുണ്ട് കളർ ചെടികളും മറ്റേ ക്രോട്ടനും എല്ലാം നട്ടിട്ടുണ്ട് പിന്നെ എല്ലാ പൂക്കളും എനിക്ക് ഇഷ്ടമാണ് ചെറുപ്പ് ചെറുപ്പത്തിലേ ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാ പൂക്കളും ഞാൻ എവിടെനിന്നെങ്കിലും എവിടെയെങ്കിലും അമ്പലത്തിലോ എന്തിനെങ്കിലും പോയെങ്കിൽ അവിടെ എന്തെങ്കിലും ചെടിയുണ്ടെങ്കിൽ ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ നടും ഇപ്പോഴും ഇപ്പം നട്ടിട്ടുണ്ട് എല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കൊണ്ട് വന്നിട്ട് നട്ടതാണ് അത് ഈ വെയിൽ കാരണം നല്ല ചൂടല്ലേ അതുകൊണ്ട് അത് കിളിർത്ത് വന്നിട്ടില്ല പിന്നെ എല്ലാം അവിടെ തന്നെ ഉണങ്ങിയിട്ടുണ്ട് അത് സങ്കടമാണ് എനിക്ക് പിന്നെ എല്ലാം നിൽക്കുന്നു എല്ലാം പൂക്കൾ ചെമ്പരത്തി ആണ് ഏറ്റവും ഇഷ്ടം ചെമ്പരത്തിയെന്ന് പറഞ്ഞാൽ കളർ ഒരു ആറ് കളർ ആകുമ്പോൾ കൊണ്ട് വന്നിട്ട് നട്ടിട്ടുണ്ട് അപ്പം എല്ലായിടത്തുനിന്ന് സംഘടിപ്പിക്കണം കുറേ കളർ കൊണ്ടുവന്നിട്ട് അപ്പം അത് അടുത്തടുത്ത് നട്ടിട്ടാകുമ്പോൾ നല്ല ഇതാണ് പിന്നെ കാശിത്തുമ്പ പിന്നെ ഇവിടെ അതിനെ കാശിത്തുമ്പേനെ ഈ നമ്മള കാസർഗോഡ് അത് പിന്നെ ഗൗരി പൂ എന്നാണ് പറയൽ പിന്ന അങ്ങനെയുള്ള കുറേ പൂക്കളെല്ലാം ഉണ്ട് പിന്നെ കൃഷിയും ഇതും ഇഷ്ടമാണ് അതിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും ഇങ്ങനെ പച്ചമുളക് അങ്ങനത്തെ എന്തെങ്കിലും നടും കൊഴ കുഴൽ അങ്ങനെ നടും പപ്പായ അതെല്ലാം നടും എന്നെങ്കിലും എനിക്കിഷ്ടം പൂക്കളാണ് പൂക്കൾ എല്ലാ പൂക്കളെയും ഇഷ്ടമാണ് പിന്നെ മുല്ല പൂ ഉണ്ട് പിന്നെ ഇത് എരവന്തിക എരവന്തികാ എന്ന് പറഞ്ഞിട്ടൊരു പൂവുണ്ട് പിന്നെ എരവന്തിക എന്ന് പറഞ്ഞെങ്കിൽ മുല്ലപ്പൂ തന്നെ ഇങ്ങനെ കുറച്ച് അട്ടി അട്ടി ആയിട്ടുള്ളതാണ് കുറച്ച് ഇങ്ങനെ ക കട്ടിയുള്ളതാണ് ഒരു നാലഞ്ചെസള് ഇതായി പിന്നെ ജമന്തി ഉണ്ട് ജമന്തി വെള്ള ഉണ്ട് മഞ്ഞ ഉണ്ട് പിന്നെ ഇത് ഇതുണ്ട് പിന്നെ മുല്ലപ്പൂവ് മറ്റേ കുടമുല്ലപ്പൂവുണ്ട് കുടമുല്ലപ്പൂവിൻ്റെ തൈയുണ്ട് ചെമ്പരത്തി ഇത് മറ്റേത് അത്തി ചെമ്പരത്തി ഉണ്ട് കുറേ ഇതുണ്ട് എല്ലാം നട്ടു വളർത്തും നമ്മള വീട് നോക്കിയെങ്കിൽ അറിയും കുറേ ഇഷ്ടങ്ങളാണ് എനിക്ക് അതേപോലെ നമ്മളടുത്ത വീട്ടിലും അങ്ങനെ തന്നെ കുറേ പൂക്കളെല്ലാമുണ്ട് അപ്പോൾ ഞാൻ അവിടെനിന്നെല്ലാം അവർ ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് നടും അതെല്ലാം എനിക്ക് ഇഷ്ടമാണ് പിന്നെ വെള്ളം അങ്ങനെ തന്നെ വെള്ളം ഒഴിച്ച് രാവിലെ ഒഴിച്ച് കൊടുക്കും ഇന്നിപ്പോൾ രാവിലെ കറണ്ട് ഇല്ല നമുക്ക് കറണ്ട് ഇല്ലാതിരിക്കുമ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് നമുക്ക് ബോർവെൽ ആണ് അപ്പോൾ അതിൽ നിന്ന് അടിച്ചിട്ട് വയ്ക്കണം പിന്നെ കിണറിലുണ്ട് കിണറിൽ നിന്ന് മനസ്സ് വരലില്ല കിണറിലെ നല്ല വെള്ളമല്ലേ നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമല്ലേ അതുകൊണ്ട് ബോർവെൽ പിന്നെ മറ്റേ വെള്ളമുണ്ട് നമുക്ക് മറ്റേ വാട്ടർ അതോറിറ്റിയിലെ അതിലും നമുക്ക് വേസ്റ്റാക്കി കളയാൻ കഴിയില്ലല്ലോ അപ്പോൾ കഴിയുന്നതും നമ്മൾ പാ എല്ലാം ഇതാക്കി അലക്കിയ വെള്ളം പാത്രം പിടിച്ച വെള്ളം ഓരോ തൈകൾക്കും ഉപയോഗിച്ചിട്ട് അങ്ങനെ നമ്മൾ തൈ അങ്ങനെ അങ്ങനെയങ്ങനെ കൊണ്ട് പോകലാണ് പിന്നെ അതുപോലെ ഇത് തെച്ചിക്കും പിന്നെ അങ്ങനെയുള്ള ചെടികൾക്കൊന്നും കോട്ടൻ്റെ അങ്ങനെയുള്ള ചെടികൾക്കെല്ലാം വെള്ളമെല്ലാം കുറവാണ് കുറവ് മതിയല്ലോ എന്നെങ്കിലും അവർ കിളിർത്ത് ഇതായിക്കോളും പിന്നെ നെല്ലി ഇതുണ്ട് നാടൻ നെല്ലിയുണ്ട് മറ്റേ ബോംബെ നെല്ലി ഉണ്ട് മാ ഒരു ഇത് നമ്മൾ അങ്ങനെയാണ് പറയൽ നാടൻ നെല്ലി പിന്നെ ഒരു ബോംബെ നെല്ലി എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് അങ്ങനെ രണ്ട് നെല്ലിക്കയുടെ തൈയുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെയങ്ങനെ സീതാപ്പഴം സീതാപ്പഴം എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ നിറച്ചും നിറയെ പിടിച്ചിട്ടുണ്ട് അപ്പം അത് പഴുത്തെങ്കിൽ അതും കഴിക്കും അങ്ങനെ കുറേ ഉള്ള നമ്മള വീട്ടിൽ അത്ര തന്നെ പത്ത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ എന്നെങ്കിലും പുറത്ത് നല്ല സ്ഥലമുണ്ട് നമുക്ക് പുറത്ത് പിന്നെ റോഡ് സൈഡ് നല്ല പി ഡബ്ല്യൂ ഡിയുടെ കുറച്ച് സ്ഥലമുണ്ട് അപ്പം അത് അവിടെയെല്ലാം ഇങ്ങനെ നമുക്ക് അങ്ങനെ വളച്ച് കെട്ടിയിട്ട് ഇതാക്കാൻ കഴിയില്ലല്ലോ എന്നെങ്കിൽ കഴിയുന്നതും പൂക്കളും അതെല്ലാം കൂടിയിട്ട് എല്ലാം നട്ടിട്ട് ഇതാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ ഇതുണ്ട് വാഴയുണ്ട് പിന്നെ അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ പൊടി കൈകളെല്ലാം പയർ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെറുത് അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ കുട്ടികളോട് കളിച്ചിട്ട് ഇങ്ങനെയുള്ള ഇതെല്ലേ ഇപ്പ വയസ്സ് ആയില്ലേ അൻപത്തഞ്ച് വയസ്സായില്ലേ പിന്നെ നമുക്ക് ഇങ്ങനെ കുറേ ഒന്നും ഇതാക്കാൻ കഴിയില്ലല്ലോ എന്നെങ്ങും കഴിയുന്നതും നമ്മൾ ചെയ്യുന്നുണ്ട് വീട്ട ഉച്ച ഉച്ച വരെ വീട്ട് വീട്ടിൽ തന്നെ ഉണ്ടാകുന്നു നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യും എല്ലാം നോക്കും അങ്ങനെ ആക്കും വെള്ളമൊഴിക്കും അപ്പം എൻ്റെ ചെറിയ മോള കുട്ടിയുണ്ട് അവൾ എന്നെ ഒന്നിച്ച് കൂടും ചെറിയ കുട്ടിയാണ് നാലു വയസ്സേ ആയിട്ടുള്ളൂ എന്നെങ്കിലും അവൾക്ക് പൂക്കൾ ഇഷ്ടമാണ് ഞാൻ നട്ടെതെല്ലാം ഓൾ തൊല്ലിയിട്ട് അങ്ങനെ കളയും അപ്പോൾ ഞാൻ പറയും കളയല്ലേ മോളെ നല്ലതല്ലേ കാണാൻ നമുക്ക് നല്ലതല്ലേ അത് കള കളഞ്ഞ് കൂട എന്നാലും അവൾ തൊല്ലിയിട്ട് പറയും ഇത് ഞാൻ നട്ട് തരാം അമ്മൂമ്മേ വലുതാ ഞാൻ വലുതാകുമ്പോൾ നിങ്ങൾക്ക് നട്ട് തരാം എന്നെല്ലാം പറയും അങ്ങനെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്